ഞങ്ങളുടേത് ഒരു ഗ്രാമപ്രദേശമായത് കൊണ്ട് തന്നെ ഇവിടെ നിരവധി പക്ഷികൾ കണ്ട് വരുന്നുണ്ട് കുരുവികളും കൊക്കുകളും പിന്നെ ഒരുപാട് നീണ്ട കൊക്കുള്ള മീനിനെ തിന്നുന്ന കുഞ്ഞി പക്ഷികൾ അതുപോലെ മൈനകൾ പലതരം കാക്കകൾ കൊക്കുകൾ പാടത്തുള്ള കൊക്കുകൾ അങ്ങനെ പലതരം പക്ഷികളെ നമ്മളിവിടെ കണ്ട് വരുന്നുണ്ട് അതിരാവിലെ മയിലുകളെ കണ്ട് വരുന്നു പിന്നെ രാത്രി മാത്രമുണർന്നിരിക്കുന്ന വെള്ളി മൂങ്ങകൾ പിന്നെ രാത്രി കണ്ണ് കാണില്ലെങ്കിലും പറന്ന് നടക്കുന്ന ബാറ്റുകൾ അങ്ങനെ ഒരുപാട് പക്ഷികളെ നമ്മളിവിടെ കണ്ട് വരുന്നുണ്ട് അതിലെനിക്ക് നിരീക്ഷിക്കാൻ ഏറ്റവും കൗതുകം തോന്നിയിട്ടുള്ളത് കൊക്കുകളെയാണ് അതെന്തുകൊണ്ടാണെന്ന് വച്ചാൽ ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ടു വരുന്ന കഥയാണ് അവർ അവർ മുട്ടയിടുന്നത് കാക്കയുടെ കൂട്ടിലാണ് എന്നൊക്കെ പക്ഷേ ഞാനിതുവരെ അത് എനിക്ക് ശ്രദ്ധിക്കാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും വുഡ് പെക്കേഴ്സിൻ്റെയൊക്കെ വുഡ്സ് പെക്കേഴ്സ് അതിനെയൊക്കെ നിരീക്ഷിക്കാൻ എനിക്കിഷ്ടമാണ് ഈ കിളികൾ കുയിലുകൾ എവിടെയാണ് കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നത് നിരീക്ഷിക്കാനും പിന്നെ അതുപോലെ ഓരോരോ പുതിയ പുതിയ കാഴ്ചകൾ കാണാനൊക്കെ എനിക്ക് വളരെ നല്ല കൗതുകം തോന്നാറുണ്ട് പലതരം പക്ഷികൾ ചില ദേശാടനകിളികൾ ചില ഋതുക്കളിൽ മാത്രമായി നമ്മൾ കാണപ്പെടുന്നു അതുകഴിഞ്ഞ് വേനൽക്കാലമൊക്കെ അവസാനിക്കുന്നതോടുകൂടി അവർ തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ പല പല കാലത്തും പുതിയ പുതിയ പക്ഷികളെ കാണാനും അതിനെ ഒക്കെ നിരീക്ഷിക്കാനും എനിക്ക് ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും കഴിയാറുണ്ട്